ഈ ഹോം തിയേറ്റർ ഈ സബ് ഒഴിവാക്കി ഇട്ടിട്ട് കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ ഇത് കുഞ്ഞി മക്കൾ അതായത് ഒരു വയസ്സ് പോലുമില്ലാത്ത മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും പോരാത്തത് ഭയങ്കര പ്രശ്നമാണ് അത് പറഞ്ഞ് മനസ്സിലാവില്ലാതെ കാരണം അത് അവരെ അവരെ അത്രെയും ടോർച്ചർ ചെയ്യുന്നതാണ് സൗണ്ട് ആ സൗണ്ട് ഭയങ്കരമായി ടോർച്ചർ ചെയ്യുന്നതാണ് അത് ഭയങ്കരൊരു പ്രശ്നമാണ് കാരണം ഇതിന്റെ അമിതമായ സബ് അതായത് മുഴക്കം മൂലം ഹാർട്ടിന് പ്രശ്നം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെവിയുടെ ചില ഭാഗങ്ങളിൽ അത് വല്ലാതെ എഫെക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇപ്പോൾ ഓവർ സൗണ്ടിൽ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുവരെ വല്ലതും പാട്ടോ സിനിമയോ എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ട് ആണ് അത് അവിടെ ഉണ്ടാകുന്നത്

ഈ ചെവിക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഹോം തിയേറ്റർ അതുകൊണ്ട് ഞാൻ വേറെ ഒരാൾക്ക് കൊടുത്തു കാരണം അവർ അവർക്കിത് ഒരുപാട് കേട്ട് ശീലമുണ്ട് അതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല എനിക്കിത് വെച്ച് കേട്ടിട്ട് പിന്നീടത് ചെവിക്ക് എന്താ പറയുക വേറെ വല്ലവരും കുറച്ചു ദൂരത്ത് നിന്ന് പറയുന്നത് ക്ലിയർ ആകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് ഞാനതൊഴിവാക്കി കാരണം അത് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊഴിവാക്കണം കാരണം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അത് ഭയങ്കര സൗണ്ടാണ് ഒന്നാമത്തേ പ്രശ്നം പിന്നെ ഈ രാത്രികളിൽ ഒക്കെ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാള് ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഇത് വെക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം ഈ ഓവറായിട്ടുള്ള സബ്ബിൻ്റെ പ്രെഷറ് കാരണം ഈ ഒന്നാമത് ആൾക്കാർക്ക് എല്ലാവരും കള്ള് ഒക്കെ കുടിച്ചിട്ടായിരിക്കും വരുന്നത് കാരണം അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട് അത് വളരെ പ്രശ്നം ആണത്